ഗൈഡല്ലേ ആ ആ സാറെ എനിക്കൊന്ന് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകണം ഒരു ഫാമിലിയായിട്ടാണ് ആറാളുണ്ടാവും ഒരു കുട്ടി ഒരു കുഞ്ഞു കുട്ടിയാണ് കൈക്കുഞ്ഞാണ് ആ കുട്ടിയും കൂടി ഏഴാള് ഒരു വൺ വീക്കോളം ഉണ്ടാവും ബഡ്ജറ്റ് നിങ്ങളെങ്ങനെയാണ് പറയുന്നത് പതിനായിരത്തിന് ഫുഡ് എല്ലാം ഉണ്ടാവില്ലേ റിസോർട്ട് ലോഡ്ജ് ആ ആ അവർ ഇപ്പം ഫസ്റ്റ് എവിടെത്തേക്കാണ് പോവുക വയനാട് മൊത്തത്തിൽ കവർ ചെയ്യാൻ കഴിയില്ലേ വയനാട് മൊത്തത്തിൽ കവർ ചെയ്യാൻ കഴിയില്ലേ ആ ആ ഫസ്റ്റ് ഇടക്കൽ കേവല്ലെ ആ പൂക്കോട്ടിലേക്ക് അതെന്താ സംഭവമെന്താണ് പൂക്കോട്ട് ലേക്കിനെക്കുറിച്ചൊന്നു പറയാമോ നല്ല വെള്ളം ഉണ്ടാവുമോ ആ ആ അപ്പോൾ ഈ കുട്ടിയിനെ കുട്ടിയിനെ കൊണ്ടുപോവുമ്പോൾ സീനുണ്ടാവുമോ